വാർത്താമാധ്യമങ്ങൾ ലോകത്തിലെ എല്ലാ കാര്യത്തെക്കുറിച്ചും ഈ ലോകത്തിൽ നടക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നാൽ പലപ്പോഴും ഇത് ശരിയായി നടക്കാറില്ല വാർത്താമാധ്യമങ്ങൾ ഉൾനാടൻ പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവിതശൈലിയെക്കുറിച്ചോ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒരിക്കലും ചർച്ചചെയ്യപ്പെടാറില്ല പലപ്പോഴും അതിനെ മാറ്റിനിർത്തുകയാണ് ചെയ്യുന്നത് കാരണം ഇന്ന് വാർത്താമാധ്യമങ്ങൾക്കു വേണ്ടത് ശരിക്കും പിന്നെ മറ്റുള്ളവർക്കുവേണ്ടി അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ചർച്ചചെയ്യപ്പെടണ്ട ഒരു കാര്യമല്ല അല്ലാതെ തന്നെ സെലിബ്രിറ്റീസിനെക്കുറിച്ചും മറ്റ് മൂവിസിനെക്കുറിച്ചും അല്ലെങ്കിൽ ആക്ടേഴ്സിനെന്തു സംഭവിക്കുന്നു അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദീർഘം ദൈർഘ്യമുള്ള ദൈർഘിപ്പിക്കേണ്ട ചില ആവശ്യമില്ലാത്ത വാർത്ത